നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ സമുദായത്തിൽ പരമ്പരാഗതമായ നൃത്ത രൂപങ്ങൾ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ട പ്രാധാന്യം നിരവധിയാണ് കാരണം നിരവധിയായ നൃത്ത കലാരൂപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം അത് ഒപ്പന മാർഗ്ഗംകളി സംഘനൃത്തം തുടങ്ങിയ പാരമ്പര്യമായി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കലാരൂപങ്ങൾ നിരവധി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും സുപരിചിതമല്ല ആധുനിക തലമുറ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിലേയ്ക്ക് മാറിയിരിക്കുന്നതിനാൽ അവർ കൂടുതലും കലാരൂപങ്ങളെ കണ്ടറിയുന്നില്ല ഉത്സവ പറമ്പുകളിലോ അല്ലെങ്കിൽ പെരുന്നാൾ സീസണുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കലോത്സവ വേദികളിൽ മാത്രമായി കലാരൂപങ്ങൾ നമ്മുടെ ഗ്രാമീണ കലാരൂപങ്ങൾ പരമ്പരാഗതമായി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവയുടെ പ്രാധാന്യം വളരെ വളരെ മികച്ചത് ആണെങ്കിൽക്കൂടി പഴയ കാലഘട്ടത്തിലെ കരണവന്മാർക്ക് അത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറ അതിൽ നിന്നും നേരെ വിഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലത്തും നൃത്തരൂപങ്ങൾ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്തുകയും അതനുസരിച്ച് അവരിൽ ഓരോ കലാബോധം മനുഷ്യമക്കളിൽ അവരുടെ കലാബോധം തെളിയിക്കാനും നമുക്ക് കഴിയണം നൃത്ത രൂപങ്ങൾ നിരവധിയാണെങ്കിലും അവ സംരക്ഷിക്കപ്പെടേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ആണ്